ഹലോ ആ അതെ സാർ പറഞ്ഞോളൂ ആ ഓക്കെ ഏത് ആയിരുന്നു സാർ സാർ ഇപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത് ആ ഓക്കെ സാർ വണ്ടി ഇപ്പം നമുക്ക് സെയിൽ ഉണ്ട് ആ ഉണ്ട് സാർ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം സെയിൽ ഉള്ള വണ്ടി ആണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം വണ്ടി ഇറക്കുന്നുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ കളർ ഇപ്പം നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് നേവി ബ്ലൂ നേവി ഗ്രീൻ അങ്ങനത്ത കളേഴ്സ് ഒക്കെ ആണ് കൂടുതലും വരുന്നത് അപ്പോൾ സാർ ഇത് ഏത് ആണ് കളറ് ചൂസ് ചെയ്യുന്ന ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ ഗ്രീൻ ആണോ ഏത് ആണ് സാറിന് ബെറ്റർ ആയി തോന്നുക ഓക്കെ ബ്ലാക്ക് ആണ് അല്ലേ ഓക്കെ വേറെ എന്തെങ്കിലും അതിനെ പറ്റി നമുക്ക് എന്ത് അറിയാൻ ഉണ്ടോ ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ മന്തിന് ഉള്ളിൽ ആണ് നമ്മള് പറയുന്നത് ഓക്കെ സാർ നമ്മൾ അഞ്ച് മണി വെരെ ആണ് ഷോറൂം ഉള്ളത് അതിനുള്ളിൽ വന്നിട്ട് സാറ് ഇപ്പം ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങൾ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ വണ്ടി ഇറക്കി തരാൻ കഴിയും ഷോറൂമ് ഇപ്പം നമ്മള് കോഴിക്കോട് ആണ് അത് ടൈപ്പിൻ്റ ഒര് അടുത്ത് ആയിട്ട് വരും ആ ഓക്കെ വൺ ഹവറിന് ഉള്ളിൽ എത്തും അല്ലെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ ഉണ്ടോ വണ്ടീനെ പറ്റി മൈലേജ് ഇപ്പം നമുക്ക് എയ്റ്റി എബോ അതായത് എമ്പത് അതിന് മുകളിലേക്ക് ഒക്കെ ആണ് പോവാ പെട്ടെന്ന് അടവ് ഇപ്പോൾ നിങ്ങള് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്നേന് അനുസരിച്ച് ആണ് അടവ് വെരാ ഇപ്പോൾ ഫസ്റ്റ് നമ്മക്ക് ആറായിരം രൂപ തന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം അതായത് ലോ എയ്റ്റീല് ആറായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും പിന്ന അങ്ങനെ ആണെങ്കിൽ മാസം ഒര് നാലായിരത്തി ചില്വാനം രൂപ വച്ചാണ് അടവ് വരിക വൺ ഹവറിന് ഉള്ളിൽ എത്തും അല്ലേ ഓക്കെ സാറിൻ്റെ സ്ഥലവും കാര്യങ്ങൾ ഒക്കെ എവിടെയാണ് ഓക്കെ സാർ ഇത് ലോൺ ആക്കാൻ ഉള്ള പരിപാടി ആണോ അപ്പോൾ ലോണ് സാർ ഇപ്പം തന്നെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് ലോണിൻ്റെ ഇത് കൊടുക്കാൻ ആണോ ഓക്കെ അപ്പം നമുക്ക് ലോണിന് ഇപ്പം സാറിൻ്റ ആധാർ കാർഡും ഫോട്ടോ രണ്ട് ഫോട്ടോ പിന്നെ ബാങ്ക് പാസ്ബുക്കും ചെക്ക് ലീഫും ആണ് ഈ ആവശ്യം വരുന്നത് ഇത്രയും പ്രൂഫുകളാണ് നമുക്ക് വേണ്ടത് ആ അപ്പം വരുമ്പം സാറ് പ്രൂഫ് മസ്റ്റ് ആയിട്ട് എടുക്കണം പിന്നെ നമുക്ക് അത്രയും കാര്യങ്ങളെ വേണ്ടുള്ളൂ സാർ എന്തായാലും പെട്ടെന്ന് തന്നെ സാർ പ്രൂഫ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ എല്ലാം ചെയ്തേക്കാം ബുക്ക് ചെയ്യാം ആ ഹെൽമെറ്റ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാർ ഓക്കെ സാർ